ആ കൃഷ്ണപ്രസാദ് അല്ലേ ആ ഓക്കെ ഓക്കെ ഞാൻ ഇല്ലേ പിന്നെ വീട് നിങ്ങൾ വീടിൻ്റെ പണി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ പെയിൻ്റിംഗ് എടുത്തിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഓണറാണ് ഞാൻ ഗൾഫിലായിരുന്നു ഇപ്പോഴാണ് വന്നിട്ട് ഉണ്ടായിരുന്നത് നാട്ടിലേക്ക് അതെ അല്ലേ എൻ്റെ പേര് അഭിജിത്ത് അഭിജിത്ത് ആ അതെ അതെ കോടോത്ത് അപ്പം ഞാൻ ഗൾഫിലായിരുന്നു ഞാൻ ഇപ്പോൾ ഇപ്പളാ നാട്ടിൽ എത്തിയത് അപ്പം എനിക്ക് പെട്ടന്ന് തന്നെ കുടി കൂടാൻ വേണ്ടിയിട്ടാണ് വീട്ടിൽ കൂടുക ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രണ്ട് അഞ്ഞൂറ്

അതിലിപ്പോൾ പുട്ടിയും കാര്യങ്ങളും എല്ലാം വരാൻ ഉണ്ടല്ലോ പുട്ടി

അതെ ഇത് ലാഗ് ആകാൻ വേണ്ടി പാടില്ല എനിക്ക് ഡേറ്റ് ഉണ്ട് അതിന് മുമ്പ് എനിക്ക് പോകുന്നതിന് മുമ്പ് തന്നെ വേണം ഇത് തീർത്തിട്ട് പോവാൻ വേണ്ടിയിട്ട് അതാണ് എനിക്ക് ഇപ്പോൾ ഈ ഫെബ്രുവരി പകുതിയോടെ കഴിയും പതിനഞ്ചിൻ്റെ ഉള്ളിൽ കഴിയും അതിന് മുമ്പിൽ എനിക്ക് കൂടണം ആ മതി പക്ഷെ എനിക്ക് ഈ പറഞ്ഞ ലീവെന്ന് പറഞ്ഞാൽ പതിനഞ്ച് വരെ ഉള്ളൂ എനിക്ക് ഒരു പതിനൊന്നിന് എങ്കിലും കൂടാൻ വേണ്ടിയിട്ട് ആണ് അതെ അതെ നിങ്ങൾ പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് ലാഗ് ആവാനും പാടില്ല നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ ഡേ പിന്നെ ഡേ അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ പ്രശ്നാണ് ഇങ്ങോട്ട് കൊറഞ്ഞാ പ്രശ്നം ഇല്ല അപ്പോൾ എട്ടിൻ്റെ ഉള്ളിൽ മാക്സിമം തീർക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതെ അതെ അപ്പം ഓക്കെ ഓക്കെ പിന്നെ കിച്ചൻ കിച്ചൻ്റെ കബോർഡും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ചെയ്തിട്ട് വേണം നമ്മൾക്ക് അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം കിച്ചൻ എല്ലാം പെട്ടെന്ന് തീർക്കുക ആണെങ്കിൽ പുട്ടിയുടെ വർക്ക് എല്ലാം തീർക്കുക ആണെങ്കിൽ നമുക്ക് അലമ്പ് ഇല്ലാണ്ട് പെട്ടെന്ന് സെറ്റാക്കാം ആ അതെ അത് തന്നെ നമുക്ക് പെട്ടെന്ന് തീർക്കണം എന്നിട്ട് വേണം എനിക്ക് പോവാൻ വേണ്ടിയിട്ട് അതെ അതെ എനിക്ക് ലീവ് കുറവാണ് ആ ഇത് എന്നോട് വേഗം പറയണേ വേഗം പറയണേ ഓക്കെ ഓക്കെ